കേരളത്തിലെ പ്രധാന ആയിട്ടുള്ള വിനോദ കേന്ദ്രങ്ങള് രാത്രി ഉണർന്നിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലങ്ങള് നമ്മള് നോക്കുകയാണെങ്കില് നമുക്ക് നമ്മളേറ്റവും കൂടുതല് പോയിട്ടുള്ളത് കന്യാകുമാരിക്കാണ് കന്യാകുമാരിയില് കന്യാകുമാരിയില് പോയിട്ട് നമ്മള് രാത്രി ഇത് വൈകുന്നേരങ്ങളിലവിടെ അസ്തമയം കാണുക അതുപോലെ കടപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ നേരം ഇപ്പോള് കടല് നോക്കി കടല് നോക്കി നമ്മള് കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക രാത്രി അവിടുന്നൊക്കെ ഉള്ള ഭക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ കഴിക്കുക ലോഡ്ജില് റൂമെടുത്താൽ തന്നെ റൂമിൽ നിന്നുകൊണ്ട് തന്നെ ഉദയം കാണത്തക്ക രീതിയിലുള്ള സംവിധാനത്തോടുള്ളിൽ ലോഡ്ജിങ്ങില് നമ്മള് താമസിക്കുക അവിടുന്ന് രാവിലെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് തന്നെ വന്ന് ഉദയം കാണുക ഉദയ സൂര്യനെ ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പോള് നല്ലായിട്ടിങ്ങനെ റെഡ് കളറില് ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് നല്ല നല്ലൊരു ഭംഗിയായിട്ട് കാണാനും നല്ലരീതിയില് ആസ്വദിക്കാനും മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നൊരു കാഴ്ചയാണ് ഉദയവും അസ്തമയവുമൊക്കെ അസ്തമയം നമുക്ക് അസ്തമിക്കുമ്പോള് നമുക്കൊരു വിഷമം തോന്നും അങ്ങനെ ഉദയം അതിലേറെ സന്തോഷം തരുന്നൊരു സംഗതിയാണ് അപ്പോള് അതുകൊണ്ട് ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന വിനോദ കേന്ദ്രങ്ങളിലൊന്ന് കന്യാകുമാരിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്